ആ ഹലോ ആരാ സംസാരിക്കുന്നത് ആ സാർ എന്നാ സാറേ വിളിച്ചത് ആ ഹാ ഹാ ഓക്കേ ആ ഹാ ഹാ

ആ ഏതൊക്കെ സബ്ജക്റ്റാ സാർ ആ ഹാ ഹാ ആ ഓക്കേ ഓക്കേ സാർ ആ സാറേ വീട്ടിൽ വന്നിരുന്ന് പഠിക്കും എന്നാലും മിക്കവാറും മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് ഇരിക്കുകയാ പിന്നെ നമുക്ക് ആ ഇത് സ്കൂളീന്ന് വീട്ടിൽ വരുമ്പഴ് ഈ ബസ് ഒരുപാട് റൂട്ട് ആ ഉണ്ടേ അപ്പോൾ ഈ കുട്ടികൾ ഒരുപാട് സമയം ഈ ബസ്സിലിരുന്ന് തന്നെ സമയം പോവുകയാണ് അപ്പോൾ ട്യൂഷനൊന്നും ഞാൻ കൊടുക്കുന്നില്ല അത് അതാ ഞാൻ പറഞ്ഞ് വരുന്നത് സാറേ ഇവിടെ വന്ന് കഴിഞ്ഞ് ട്യൂഷനോ കോച്ചിംഗോ കൊടുക്കാൻ ടൈം നമുക്കില്ല പിന്നെ സാറ്റർഡേയ്സ് സൺഡേയ്സ് മാത്രമേ ഉള്ളൂ സൺഡേ എന്ന് പറയുമ്പത്തേക്കിന് ആ ഞാൻ ഇനി ശ്രദ്ധിച്ചോളാം പിന്നെ ഈ സബ്ജക്റ്റുമായിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ കോച്ചിംഗ് കൊടുക്കാൻ വേണ്ടി സ്കൂളിൽ തന്നെ ഒരു സൗകര്യം ഉണ്ടാക്കാൻ പറ്റുമോ

ആ ഓക്കേ സാർ ഓക്കേ ആ ഓക്കേ വരാം സാർ ഓക്കേ ആ ഓക്കേ സാർ ഓക്കേ താങ്ക് യു ഫോർ യുവർ കോളിംഗ്